ആ ഇവിടെ ഏത് രീതിയിലുള്ള എണ്ണയാ യുസ് ചെയ്യുന്നത് നിങ്ങള് അതെ എനിക്ക് ആ എനിക്ക് പക്ഷെ അത് പുറം രാജ്യത്തേക്ക് കൊടുത്ത് വിടാനാണ് ആ അപ്പോൾ ഗൾഫിലേക്ക് ആ കൊടുത്ത് വിടാനായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ കൊറ നമ്മള് കുറച്ച് കോ കൂടുതൽ കോണ്ടിറ്റി നമ്മള് വാ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കില് അത് അവിടെ സൂക്ഷിക്കുന്നതുകൊണ്ട് പെട്ടന്നങ്ങനെ കേട് വരിക അങ്ങനെന്തെങ്കിലു ഒക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമോ ഓക്കെ പിന്നെ ഈ പച്ച തേങ്ങയിൽ നിന്ന് നമ്മളിപ്പം എണ്ണ എടുക്കുന്നുടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ടൈപ്പിലുള്ള എണ്ണയൊക്കെ ഉണ്ടോ ഇവിടെ അപ്പോൾ അത് നമ്മള് തലയിൽ തേയ്ക്കുന്നോണ്ട് മുടിക്കൊഴിച്ചില് കാര്യങ്ങള് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമോ ഓക്കെ ഇതിപ്പോൾ ലിറ്ററിന് എങ്ങനെയാണ് വില വരുന്നത് നമ്മള് ചോദിക്കുന്നത് മറ്റേ പച്ച തേങ്ങയിൽ നിന്ന് എടുക്കുന്ന തേങ്ങയുടെ എണ്ണക്കാണ് ഒരു ലിറ്ററിന് എന്താ വില വരുന്നത് മറ്റേ ഒണക്ക തേങ്ങയ്ക്ക് നൂറ് രൂപ ഇപ്പം എനിക്ക് സാമ്പിള് നോക്കാനായിട്ട് മറ്റേ പച്ചതേങ്ങയിലിട്ട് നാ എണ്ണ മതി അത് ഒരുലിറ്ററ് വേണം പിന്നെ എനിക്ക് ആ ഒരു ലിറ്ററ് ഇപ്പം തൽക്കാലം അതിപ്പം എനിക്കൊരു സാമ്പിളായിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് വന്നിട്ടത് നല്ലൊരു ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് പൊക്കോളാം പക്ഷെ എനിക്ക് ഇപ്പം വേണ്ടത് ഗൾഫിലേക്ക് കൊടുത്തുവിടാനായിട്ടൊരു ഉണ്ടങ്ങിയ തേങ്ങയുടെ തന്നെ വേണം അതൊരു പത്ത് ലിറ്ററോളം വേണം ഉം ആ ഒ ശരി

അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം എന്തായാലും ഈയൊരു എണ്ണ ഒരു ലിറ്ററ് എനിക്കിപ്പം നോക്കാൻ വേണം അപ്പം അത് നമുക്ക് ഭക്ഷണത്തിനോടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അല്ലേ പച്ചത്തേങ്ങയിൽ നിന്നുള്ളത് അതെയോ ഇപ്പം നമ്മള് ചെറുത് ചെറിയ കുഞ്ഞുങ്ങൾക്കിങ്ങനെ കുടിക്കാൻ ഒക്കെ കൊടുക്കില്ലെ പണ്ടുള്ളവര് അപ്പം അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ വല്ല കുഴപ്പവു ഉണ്ടാകുമോ ആ ഓക്കെ ഇതിനെന്താ റേറ്റ് പറഞ്ഞിട്ടു ണ്ടായിരുന്നത് ആ ആ ഓക്കെ അപ്പം എന്തായാലും അപ്പം എനിക്കിതൊര് ലിറ്ററ് വേണം പച്ചതേങ്ങയുടെ ഉം ഞാനൊരാഴ്ച്ച കഴിഞ്ഞ് വന്നിട്ട് മറ്റേ ഓണക്കതേങ്ങയുടെ പത്ത് ലിറ്ററ് വാങ്ങിച്ചോളാം അത് കാരണം പോവുന്ന ആ ഒരു സമയത്ത് നിങ്ങള് ഫ്രഷായിട്ട് ആട്ടിയിട്ടുള്ള അപ്പം അത് മതി കാരണം നമ്മളത് കുറെ വർഷം ഉപയോഗിക്കും അവര് അവിടെ കൊണ്ട് പോയിട്ട് ഗൾഫിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടാണ് ആ അപ്പോൾ അത് ആ ഒരു സമയത്ത് നമ്മള് വന്നിട്ട് കളക്റ്റ് ചെയ്തിട്ട് കൊണ്ട് പോവാം ആ അപ്പം ഇപ്പം ഇതെടുത്തിട്ട് ബിൽ ചെയ്യാം ആ അതിന് ശേഷം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരാം ഉം ശരി